ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ആൾക്കാർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ യുവജനങ്ങൾക്കൊന്നും ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ പലരീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള അഴിമതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ റോഡ് പണിയിൽ തന്നെ പലരീതിയിലുള്ള അഴിമതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം റോഡ് പണിക്ക് ഉപയോഗിക്കുന്ന കല്ലുകളിൽ മായം അതായത് ഇപ്പോൾ കല്ലുകൾ കുറച്ചിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ പൊടികൾ ഒക്കെ കാര്യങ്ങളൊക്കെ ചേർക്കുക പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടാറ് മെയിനായിട്ടുള്ള ടാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഓരോ ആനുപാതികം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മുക്കി അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഇടുന്നത് അപ്പം റോഡുകളൊക്കെ വേഗം പൊളിഞ്ഞു പോകാൻ ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് റോഡും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോകാനും കാര്യങ്ങളൊക്കെ സാധ്യതയാണ് പിന്നെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണ് നയങ്ങൾ ഇവരുടെ നമ്മളെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നയങ്ങൾ ഒക്കെ ഭയങ്കര ആയിട്ടും നമ്മുടെ എന്താ പറയുക ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു അടിമത്വത്തെ ആണ് എനിക്ക് ഓർമ്മവരുന്നത് കാരണം നമുക്കിപ്പോൾ ഒരു സ്വന്തമായിട്ട് ഒരു വണ്ടിയെടുത്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആണ് ക്യാമറയും കാര്യങ്ങളും വണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് ഒരു ലൈറ്റോ എന്തെങ്കിലും എക്സ്ട്ര ഒന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് ഭയങ്കര പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വരണമെന്നാണ് എൻറെ ഒരു ആഗ്രഹം